ഇപ്പോൾ ഒരു പാസഞ്ചർ ബസ്സിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പാസഞ്ചർ ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലതരം ബസ്സുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുണ്ട് പിന്നെ തമിഴ് നമ്മുടെ എന്താ പറയുക ഒരു ഷെയ്ഡ് ഗാരേജ് ആയിട്ടൊക്കെ ഓടുന്ന ബസ്സുകളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ അതിന് ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമുക്ക് മുകളില് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അങ്ങനെ പല രീതിയില് ഇപ്പോൾ വിൻഡോസ് ഉണ്ടാവും നമുക്ക് ഇരുന്ന് സൈഡിലൂടെ വാച്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ വിൻഡോസിന് ഇപ്പോൾ ഇറങ്ങുന്നതിനൊക്കെയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ഇതാണ് അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗ്യാരേജ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ അതിനാണെങ്കിൽ ഷട്ടർ ഇട്ടിട്ടുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ല് പിടിപ്പിച്ചിട്ടുള്ള ഇതുണ്ട് അതായത് വിൻഡോസും കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ ഇപ്പോൾ വരുന്ന പുതിയ മോഡൽ ബസ്സുകൾക്കൊക്കെയാണ് ഇങ്ങനെ ചില്ലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് ആദ്യത്തേതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടറും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ തുണിയുടെ സൈഡ് വിൻഡോയും കാര്യങ്ങളൊക്കെ പിന്നെ ഈ വണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡീസലിലാണ് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് പെട്രോളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്